ഹലോ ആ നമുക്ക് ഒര് കിലോ മത്തി വേണം എങ്ങനെയാണ് മത്തിക്ക് വില വരുന്നത് മറ്റേ അയലക്കോ ആ നമുക്ക് ഇപ്പം ഒര് കിലോ മത്തി ഒര് കിലോ അയലയും കൊണ്ടുവന്നാൽ മതി പിന്നെ നമുക്ക് എല്ലാ ആഴ്ച്ചയിലും നമുക്ക് ഓരോ കിലോ മത്തിയും രണ്ട് കിലോ അയലയും വെച്ച് വേണം അത് ആ അപ്പഴേ നമുക്ക് അത് ഇവിടെക്കൊണ്ടെത്തിച്ച് തരണം അതിനുള്ള സംവിധാനങ്ങളുണ്ടോ ആ നമുക്ക് മീനൊക്കെ ഇപ്പം വില കുറവൊക്കെയാണ് കുറച്ചൊക്കെ വിലയൊക്കെ കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്യണം ആ പിന്നേ മറ്റ് മീനുകളൊക്കെ എങ്ങനെ ഉണ്ട് മറ്റേ കാളാഞ്ചി ചൂര ഏ ആ ആ ഞങ്ങൾക്ക് ഒരൂ രണ്ട് കിലോ ചൂരയൊക്കെ വല്ലപ്പോഴും ഒക്കെ വേണ്ടിവരും ആ ഞങ്ങള് അത് പറയാം നിങ്ങള് ഇപ്പം നമ്മളത് വെട്ടിയാണോ കൊടുത്ത് വിടുന്നത് അതോ ആ അങ്ങനെ വെട്ടാനവിടെ ആളുണ്ടോ ആ അത് കുഴപ്പമില്ല വെട്ടി കൊടുത്ത് വിട്ടാൽ മതി ഇവിടെ വെട്ടാനൊന്നും ആളില്ല ആ ഇപ്പം ഒര് കിലോ മത്തിയും ഒര് കിലോ അയലയും ആ പിന്നേ വരുന്ന ആഴ്ച്ച എല്ലാ ആഴ്ച്ചയും ആ ഇനി ഇപ്പം വേറെയൊന്നും വേണ്ട ഇനി നമുക്ക് എല്ലാ ആഴ്ച്ചകളിലും ഒരൂ ഒര് കിലോ മത്തിയും ഒര് കിലോ അയലയും കൊടുത്ത് വിടണം അത് ഞങ്ങള് വേണ്ടതിൻറ്റേ ആ അപ്പം ഞങ്ങള് വേണ്ടതിന്റെ തലേദിവസം വിളിച്ച് പറയും ഇതിപ്പം എങ്ങനെ ഉണ്ട് ചൂരക്ക് എങ്ങനെ ഉണ്ട് വില ആ എന്നാൽ ഒര് കാര്യം ചെയ്യ് ഒരു രണ്ട് കിലോ ചൂരകൂടെ കൊടുത്ത് വിട്ടേരെ ആ എപ്പഴത്തേക്കിന് കൊണ്ടുവരുമായിരിക്കും ആ ആ ആ ആ ആ ഫ്രഷ് ആയിരിക്കണേ

പിന്നെ ആ ഇനി നമുക്ക് എല്ലാഴ്ച്ചത്തേക്കിനും നമ്മള് വേറെങ്ങും മീന് പറയുന്നില്ല കേട്ടോ ഇനി ഇപ്പം എല്ലാ ആഴ്ചയിലും അവിടുന്ന് തന്നെ നമ്മള് മേടിക്കാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത് മാക്സിമം വില കുറച്ച് നല്ല ഫ്രഷായിട്ടുള്ള സാധനങ്ങള് കൊട്ത്ത് വിടാനായിട്ട് നോക്കണം അത് ഇച്ചെ പൈസ പിന്നേ വെട്ടുന്നതിന് പൈസ തന്നേക്കാം അത് വെട്ടി ആ ആ ആ അ എന്നാൽ ശരി എന്നാൽ